കളികളെന്ന് പറയുമ്പോൾ കലാപരമായും കായികപരമായും കളികളുണ്ട് കലാപരമായിട്ട് ഡാൻസ് പാട്ട് അതൊക്കെ പ്രസംഗം അങ്ങനെ ഉള്ള ആ ഒരു കളികൾ നല്ല കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കുട്ടികളെ പോലെ തന്നെ എല്ലാവർക്കും മാനസിക ഉല്ലാസം നൽകുന്നു കണ്ണുകൾക്ക് കണ്ണുകൾക്കും ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷം നൽകുന്നതാണ് കലാപരമായിട്ടുള്ള കളികൾ ഡാൻസ് മോണോ ആക്ട് പിന്നെ കഥാപ്രസംഗം അങ്ങനെ വിവിധ തരത്തിലുള്ള കളികൾ പിന്നിപ്പോഴെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് എങ്കിൽ പോലും അത് നല്ലപോലെ മനുഷ്യന് സർഗാത്മകത വളർത്തുന്നുണ്ട് കലാപരമായിട്ടുള്ള കളികളെ സംബന്ധിച്ച് പറയാണെങ്കിൽ മാർഗ്ഗം കളി പരിചമുട്ട് കളി അങ്ങനെ കോൽക്കളി അങ്ങനെ പലവിധ കളികളുണ്ട് ആളുകളുടെ ശരീരത്തിൻ്റെ വഴക്കത്തിനും ആളുകൾക്ക് മാനസിക ഉല്ലാസം നൽകുന്നതിനും ഒന്നിൽ അധികം പേർ ഒന്നിച്ച് ചേർന്ന് കളിക്കുമ്പോൾ അതിലൂടെ പല തരത്തിലുള്ള ആശയവിനിമയം നടത്തുന്നതിന് സാധിക്കുന്നു ആൾക്കാർ കൂടുമ്പോൾ പ്രത്യേകിച്ച് കുടുംബിനികളെ സംബന്ധിച്ചെടുത്തോളം മാർഗ്ഗം കളി അങ്ങനുള്ള കളികളൊക്കെ അവർക്ക് പരസ്പരം ഒന്നിച്ച് കൂടുന്ന സമയത്ത് പരസ്പരം കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നതിനും ഒക്കെ സാധിക്കും ഇപ്പം കൂടുതലായിട്ടും മനുഷ്യന് പറ്റാത്തൊരു കാര്യമാണ് മനുഷ്യന് മനുഷ്യരുടെ ഇടയിലില്ലാത്തൊരു കാര്യമാണ് ഷെയറിങ്ങെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ അതുപോലുള്ള കളികളൊക്കെ സംബന്ധിക്കുന്ന ആളുകൾക്ക് ഷെയറിങ്ങ് എത്ര സാധിക്കുന്നു മനുഷ്യൻ്റെ ടെൻഷൻ അതു മൂലം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ പരിചമുട്ട് കളി കോൽകളി ഒക്കെ പുരുഷന്മാരെ സംബന്ധിച്ചെടുത്തോളം അതും ഒന്നിൽ അധികം ആൾക്കാർ കൂടി ചെയ്യുന്നതാണ് അവരും ഇത്പോലെ കളിക്കുന്നതിന് മുൻപും പിൻപുമൊക്കെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് സാധിക്കുന്നു അങ്ങനെ മാനസികമായിട്ട് അവർക്കൊരുപാട് ഉന്മേഷം അതിലൂടെ കിട്ടുന്നുണ്ട് ഒരുപാട് ടെൻഷനും കുറയ്ക്കുന്നതിന് സാധിക്കുന്നുണ്ട് പിന്നെ ഈ അല്ലാതുള്ള കായികമായിട്ടുള്ള കളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉന്മേഷം ലഭിക്കുന്നുണ്ട് അതിലൂടെ മനുഷ്യൻ്റെ സർഗ്ഗാത്മകത വളർത്തുന്നതിന് വളരെ ഏറെ പ്രയോജനമാണ് ഒന്നിൽ അധികം ആളുകൾ ചേർന്ന് കളിക്കുന്ന പഴയ കാലത്തെ കളികൾ ഇപ്പോഴില്ല എങ്കിൽ പോലും പുതിയ പുതിയ കളി പുതിയ പുതിയ കളികളിലൂടെ ഇപ്പോൾ മനുഷ്യന് സർഗ്ഗാത്മക വളർത്തുന്നതിന് സാധിക്കുന്നുണ്ട്

അങ്ങനെ കളിയിലൂടെ ആളുകൾക്ക് മാനസികവും ശാരീരികവുമായ ഉന്മേഷം ലഭിക്കുന്നതിന് സാധിക്കുന്നുണ്ട്